ഹലോ ഇത് ബി എം ഹൈ സ്കൂളിലെ പ്രിൻസിപ്പാളിൻ്റെ നമ്പർ അല്ലേ ആ ഞാൻ എൻ്റെ പേര് രേഷ്മ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ എനിക്ക് കാസർഗോഡേക്ക് ഒരു ട്രാൻസ്ഫർ ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ മക്കളെ അവിടെ ചേർക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് ആ എൻ്റെ മക്കൾ രണ്ട് ആളാണ് ഒരാൾ ഇപ്പോൾ രണ്ടാം ക്ലാസ്സിൽ ആണ് പഠിക്കുന്നത് മറ്റേ ആൾ എൽ കെ ജി അപ്പോൾ അവിടെ ജൂൺ മുതൽ ആ നിങ്ങളെ സ്കൂളിൽ ആണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇനി രണ്ടാം ക്ലാസിൽ തന്നെ ആണോ ഇരുത്തേണ്ടത് മുന്നിലേക്ക് ചെയ്യാൻ പറ്റുമല്ലോ ആ കഴിഞ്ഞു ഈ മാർച്ചിൽ ഇപ്പോൾ നടന്നത് കൊണ്ട് ഈ മാർച്ചിൽ കഴിയും ആ ആ മറ്റേ കുട്ടിയുടെ എൽ കെ ജി ഉണ്ട് അല്ലേ അവിടെ ആ ഓക്കെ പിന്നെ വേറെ സ്കൂൾ വണ്ടി ഉണ്ടോ അതെ അല്ലേ ഇത് ടൗണിൽ തന്നെ ആണോ സ്കൂൾ ആ അതെ അല്ലേ ആ മറ്റ് കുട്ടികൾ എല്ലാം എങ്ങനെ ഓട്ടോ ഒക്കെ ഉണ്ടോ എല്ലാ ഭാഗത്തു നിന്ന് വരുന്നത്

ഞാൻ അപ്പോൾ അഡ്മിഷൻ്റെ കാര്യത്തിന് ഏത് മാസം വരേണ്ടത് മാർച്ച് കഴിഞ്ഞിട്ട് ആണോ വരേണ്ടത് ആ അപ്പോൾ ഈ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം വരാം അല്ലെ ആ എത്ര ഡിവിഷൻ ഉണ്ട് അവിടെ ഓരോ ക്ലാസും അതെ അല്ലേ ആ ഒക്കെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടോ അവിടെ ആ ഇവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ അപ്പോൾ അത് തന്നെ ആണ് വേണ്ടത് ആ അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ ചേർക്കാം അല്ലേ അപ്പോൾ ഞാൻ ഏതായാലും മെയ്യിൽ ഒരു ദിവസം സ്കൂൾ വർക്കിംഗ് ഡേയിൽ ഒരു ദിവസം വരാം ഇനി വേറെ ബുക്ക് ചെയ്യുകയൊന്നും വേണ്ടല്ലോ ഇനി വന്നാൽ മതിയല്ലോ ആ ആയിക്കോട്ടെ ശരി അപ്പോൾ